ഞാൻ ഇപ്പം താമസിച്ചുകൊണ്ടിരിന്നത് ട്വൽവ് ഡി യിലാണ് അവിടെയാണ് എനിക്ക് ഗാസ്സ് ലഭിച്ചുകൊണ്ടിരിന്നത് ഇപ്പം ഞാൻ അവിടുന്ന് മാറി അവിടുന്ന് മാറി അതേ ഫ്ലാറ്റിൽ തന്നെ താഴത്തെ ആറാമത്തെ നിലയിലോട്ട് മാറി സിക്സ് ഡി ആറാമത്തെ നിലയിൽ സിക്സ് ഡി യിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പം ഇനി ഗാസ് വരുമ്പോൾ അവിടോട്ട് ആണ് തരേണ്ടത് അവിടോട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു